അയ്യോ ഇത് വേറെ ആ ഹലോ

ആ ആണാ ആൻ ടീച്ചർ ആണ് ടീച്ചർ അനന്ദഭൈരവി ആനന്ദഭൈരവി മ്യൂസിക് സ്കൂൾ അല്ലേ ആ ആ ആ എനിക്കറിയണം മാഡം ഞാനങ്ങനെ കുറേ ക്വൊസ്റ്റ്യൻസ് ഇങ്ങനെ കരുതി വെച്ചേക്കുവായിരുന്നു എനിക്ക് ചോദിക്കണം എന്തൊക്കെയാണ് മാം അവിടെ ഏതൊക്കെ മ്യൂസിക്സ് ആണ് പഠിപ്പിക്കുന്നത് ആ ആ മാം അവടെ രാവിലെ എത്ര മണിയ്ക്കാണ് ഞാൻ വരേണ്ടത് ബെസ്സ് എങ്ങാനും ഉണ്ടോ ഇവിടുന്ന്

അപ്പം പാരൻറ്റ്സ്സ് വിളിയ്ക്കാൻ വന്നാലേ ഞങ്ങളെ കുട്ടികളെ വിടത്തുള്ളൂ അല്ലേ

ഓക്കെ ഓക്കെ ഈ ഇപ്പം ക്ലാസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും ഒരു അർജൻറ് ആവശ്യം വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ വിടുമോ പേരൻറ്റ്സിന്റെ കൂടെ

ആ അപ്പം ഞങ്ങൾക്ക് എങ്ങാനും താമസിച്ച് ലേറ്റ് ആയിട്ട് ഞങ്ങൾ വന്ന് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് മാം

ആ എത്ര ടീച്ചർമാർ കാണും മൊത്തത്തിൽ ഒന്ന് പഠിപ്പിയ്ക്കാൻ ആ മാം അനന്ദ ആ മാം അ ഓക്കെ ആനന്ദഭൈരവി മ്യൂസിക് ക്ലാസ് എന്ന് പറയുന്നത് ഇവിടുത്തെ തന്നെ നല്ലൊരു നിയർ അടുത്തായിട്ട് വരുമ്പം ഒരു നല്ലത് നല്ല മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു സെന്ററ് ആണ് അപ്പോൾ ഫീസൊക്കെ എമൗണ്ട് കൂടുതലായിരിക്കും അപ്പോൾ ഒരു മന്ത് അവിടെ ആ മ്യൂസിക് ക്ലാസിന് എത്ര ആയിരിക്കും പ്രൈസ് ആ മാം അത് ഇച്ചിരി കൂടുതൽ അല്ലേ

അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആ യൂണീഫോം വല്ലതും ഉണ്ടോ അവിടെ ഇടുന്നതിന് അതിന് വല്ലതും പുതിയ വേറെ ഫണ്ട് വല്ലതും തരേണ്ടി വരുമോ

ആ അഡ്മിഷൻ ഫീ എത്രയാവും ആ ഓക്കെ ഓക്കെ പിന്നെ അവിടെ എങ്ങനെയാണ് ആ പരിസരമൊക്കെ ആ ഒരു ഗ്രൗണ്ടക്കെ എങ്ങനെയാണ് എന്ത് സേഫ്റ്റി ആയിരിക്കുമോ

ആ മാം ഈ ഗേൾസിനെയും ബോയ്സിനെയും രണ്ടായിട്ടാണോ പഠിപ്പിക്കുന്നത് അതോ ഒരു ഒരു ഇതായിട്ടാണോ പഠിപ്പിക്കുന്നത് ആ മാം അപ്പം ആ ഞാൻ എത്ര വർഷം വേണ്ടി വരും നന്നായിട്ടൊന്ന് മ്യൂസിക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്

യാ ഈ ഇനി ഈ ഇൻസ്ട്രമെൻസ് ഒക്കെയോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ അതും പഠിക്കാൻ വേണ്ടിയിട്ട് ആ ആ ഇനി ഒന്നും ഇല്ല ഞാൻ മുതൽ ഞാൻ തീർച്ചയായിട്ടും വരും പിന്നെ ഈ ഫീസിന്റെ കാര്യം

എന്തെങ്കിലും ഒരു ഇളവ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത്രയും ഇതായേനെ ആ ഞാൻ നന്നായിട്ട് പാട്ടൊക്കെ പാടും മാം ആ ഞാനൊരു രണ്ട് വരി മാമിന് വേണ്ടി പാടട്ടെ അ കണ്ണീരേ കണ്ണീരിലേ പിരിന്ത് ഞാൻ പോകിണ്ട്രെ ഏ അ താങ്ക് യു മാം എനിക്കിനിയും ഒരു വലിയ ഒരു എല്ലാവരും അറിയുന്ന ഒരു ഗായികയാവാൻ താൽപ്പര്യം ഉണ്ട് അത് മാമിന്റെ ആനന്ദഭൈരവി മ്യൂസിക് സ്കൂളിൽ വന്ന് എനിക്കത് ആവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ എന്നാൽ താങ്ക് ഓക്കെ